ഹലോ ആരാണ് വിളിക്കുന്നത്

അതേല്ലോ ആ ഡെലിവറി ചെയ്തായിരുന്നല്ലോ സാധനം അല്ല മേഡം ഞങ്ങളിവിടെ നിന്നു നല്ലത് അല്ല മേഡം ഞങ്ങളിവിടെ നിന്ന് കറക്റ്റായിട്ടാണത് പർച് ഡെലിവർ ചെയ്തത് അല്ല മേഡം സീ അല്ല നിങ്ങളുടെ കയ്യിൽ വന്നതിനു ശേഷമായിരിക്കും അതിനെന്തെങ്കിലും കമ്പ്ലൈൻറ്റ് സംഭവിച്ചത് അവർ പായ്ക്ക് ചെയ്തു കഴിഞ്ഞിട്ട് അവർ കൊടുത്ത സമയത്തെങ്ങാനും സംഭവിച്ചതായിരിക്കും പാക്കിങ്ങിനു ശേഷമായിരിക്കും അതിന് ഡാമേജ് സംഭവിച്ചത് ഞങ്ങളല്ലെങ്കിൽ അല്ല മേഡം ഞങ്ങൾ നല്ല രീതിയിലാണത് പേക്ക് ചെയ്ത് അല്ല കൊണ്ടു വന്ന് ഡെലിവറി ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളാ സമയത്തത് ചെക്ക് ചെയ്തിട്ട് ഞങ്ങളോടു വിവരം പറയണമായിരുന്നു ഇപ്പം നിങ്ങളുടെ കൈയിലെത്തി സംഭവിച്ചു കഴിഞ്ഞിത് പറഞ്ഞിട്ടു കാര്യമില്ല ഇല്ല ഞങ്ങളിതു വരെ വർഷങ്ങളായി നിങ്ങളീ ഞാനീ ഫീൽഡിലുണ്ട് നല്ല രീതിയിലാണ് ഞങ്ങൾ സാധനങ്ങൾ ഡെലിവർ ചെയ്യുന്നത് ഇതുവരെ ഒരു കമ്പ്ലൈൻറ്റ് അതിൻ്റെ പേരിൽ കിട്ടിയിട്ടില്ല അത്രയ്ക്ക് മേഡം അങ്ങനെ നഷ്ട പരിഹാരം തരാനായിട്ടൊന്നും ഞങ്ങളുടെ കയ്യിലില്ല കാരണം ഇത് ഏറ്റവും ഉത്തരവാദിത്വ പൂർണ്ണമായിട്ടാണ് ഞങ്ങളീ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതതും ഏറ്റവും ഇതിപ്പം നിങ്ങളുടെ കയ്യിൽ നിന്നു സംഭവിച്ചതായിരിക്കും അതിനു ശേഷം നിങ്ങൾ ഇത് എന്ത് എന്തു കൊണ്ടിത്ര ഉറപ്പോടെ പറയുന്നു ഇതിടിച്ചു തൊറ തുറക്ക് തുറക്കുന്നതിനു മുൻപു തന്നെ പിടിച്ചു തുറക്കുന്നതിനു മുൻപ് നിങ്ങളത് പിടിച്ചു കുലുക്കുകയോ ഇടിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് താഴെ വീഴുകയോ ചെയ്തു കാണും എന്നിട്ട് കമ്പനി ഇതെൻ്റെ ഉത്തരവാദിത്വമാണെന്ന് ഉത്തരവാദിത്വക്കുറവ് മൂലമാണെന്ന് നിങ്ങൾക്കത് കൊണ്ടിത്രയും പർട്ടിക്കുലറായിട്ട് പറയാനായിട്ടു സാധിക്കുന്നു നിങ്ങളിത്രയും മോ വില മുടക്കി ഓഡർ ചെയ്ത സാധനമാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽക്കൊണ്ട് നിങ്ങളുടെ കയ്യിൽ തരുന്നു തന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതു നിങ്ങൾ ചെക്ക് ചെയ്യണമായിരുന്നു ഇതിപ്പം രണ്ട് ഇതു കയ്യിൽ തന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണോ വിളിച്ചു പറയുന്നത് ഇതു ഞാൻ ഒരു സാധനം ഡെലിവർ ചെയ്തതിനു ശേഷം ഒരു സാധനം ഡെലിവർ ചെയ്തതിനു ശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കമ്പ്ലൈൻ്റുമായിട്ട് വരികയാണെങ്കിൽ ഞാനിതെങ്ങനെ വിശ്വസിക്കും അങ്ങനെ പറയാതെ മാഡം അല്ലെങ്കിൽ സാ മേഡം നമുക്കൊരു കോമ്പ്രമൈസിലെത്താം ഞാനവിടെ വരാം വന്നിട്ട് എന്താണ് കമ്പ്ലെയിൻ്റ് എന്നു നോക്കാം അതു കഴിഞ്ഞിട്ട് നിങ്ങളാ ശരി മേഡം ശരി എന്നാൽ